തീർച്ചയായിട്ടും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്നത്തെ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തില് നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം കുട്ടികള് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ടാരുടേയും വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നില്ല അവർടെ തുടർ തുടർ പഠനത്തിനാഗ്രഹിക്കുന്നവരാണ് ഒരു ബഹുഭൂരിപക്ഷം കുട്ടികളും അത്കൊണ്ട്തന്നെ ആവർ ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോഴ് ഇപ്പം നമ്മടെത്തെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമനുസരിച്ച് അതൊരു പ്ലസ്ടുവായിരിക്കാം അതവരുടെ ഒരു ചോയ്സിന് അനുസരിച്ച് സബ്ജെക്റ്റ് അനുസരിച്ച് എന്ന് പറയുമ്പോൾ സയൻസാകാം കോമേഴ്സാകാം ഇനിയതല്ലെങ്കില് ഹ്യൂമാനിറ്റീസ്സാകാം ഇങ്ങനെ ഉള്ള സബ്ജെക്റ്റുകള് ഏതാണോ അതവര് സെലക്ട് ചെയ്ത് തീർച്ചയായിട്ടും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് ഇനി അഥവാ വിദ്യാഭ്യാസം തുടരാനൊരു സാഹചര്യമില്ല വീട്ടിലെന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിലേർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽപ്പോലും അവരും അവരുടെ വിദ്യാഭ്യാസം ഒരു പരിധിവരെ അവരുടെ ബിസിനസ് ഏതാണോ ആ ബിസ്നസ്സിന് സഹായകമായ രീതിയിൽ വിദ്യാഭ്യാസം നടത്തിയതിന് ശേഷം ബിസിനസ്സിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് കണ്ട് വരുന്നത് കാരണം എന്തെന്ന് വെച്ചാല് ഇപ്പം ബിസിനസ് എന്ന് പറയുമ്പം അത് അതിനൊരു ഒരു നയമുണ്ട് ആ ഒരു നയം എന്താണെങ്കിലും ആ നയം അനുസരിച്ച് വേണം മുന്നോട്ട് പോവാൻ അല്ലെങ്കിൽ ബിസ്നസ്സാകുമ്പോഴ് പണസംബദ്ധമായ കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരിക അപ്പം അതിൽ ലാഭമുണ്ടാകാം നഷ്ടമുണ്ടാകാം അപ്പം ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് ലാഭം ഉണ്ടാക്കാനാണ് അപ്പം ഒരു ബിസിനസ് എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം ആ ഒരു മേഖല അതവര് തിരഞ്ഞെടുക്കും അതനുസരിച്ച് ആയിരിക്കും അവരുടെ തുടർപ്പഠനം മുന്നോട്ട് പോവുക ഇനി ജോലിക്ക് പോകുന്നവരുണ്ടാകാം ജോലിക്ക് പോകുക എന്ന് പറയുമ്പോഴും ആ എന്ത്ജോലിയാണോ അവര് ആഗ്രഹിക്കുന്നത് ഇപ്പം ആ ജോലി വേണ്ട രീതിയിൽ നന്നായി ചെയ്തുകൊണ്ട് പോകാൻ പര്യാപ്തമായ രീതിയിലുള്ള അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം ആ അറിവ് നേടുന്നതിന് അവര് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് വിദ്യാഭ്യാസം തന്നെയാണ് അവരെ സഹായിക്കുക അപ്പോൾ ജോലിയില്ലാതെ ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും അലസനായി നടക്കാനാഗ്രഹിക്കുന്നില്ല കാരണം അവരുടെ ഭാവിയെക്കുറിച്ച് അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്തായാലും അത് നേടിയെടുക്കാൻ അവര് കഠിന പരിശ്രമം നടത്തുകതന്നെ ചെയ്യും അപ്പോൾ ജോലി ക്ക് പോകുന്നവരുണ്ട് ബിസിനസ്സിന് പോകുന്നവരുണ്ട് തുടർപഠനത്തിന് പോകുന്നവരുണ്ട് തുടർപഠനത്തിന് പോകുന്നവരാണെങ്കിൽപ്പോലും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഭാവിജീവിതം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നല്ലൊരു ഭാവിജീവിതം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോഴ് അതിൻ്റെ അടിസ്ഥാന ഘടകമായി അവരെ നിൽക്കുന്നത് അല്ലെങ്കിലവരെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും സ്കൂൾ വിദ്യാഭ്യാസത്തോട് കൂടി ഇന്നത്തെ തലമുറ വിദ്യാഭ്യാസം നിർത്തുവാന് അടുത്ത ഒരു ടേണിലേക്ക് പോകുവാനോ അവര് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും തന്നെ എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനവും ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും ആഗ്രഹിക്കുന്നത് ഒരു തുടർ വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസം അവരുടെ കുടുംബപരമായുള്ള ബിസിനസ്സിൽ സഹായിക്കുന്നതിനാകാം അതുവല്ല അതല്ലെങ്കില് അവര് മറ്റെന്തെങ്കിലുമൊരു മേഖലയിൽ ജോലി തേടുന്നതിനുവേണ്ടിയോ ആയിരിക്കാം വിദ്യാഭ്യാസം അത് ഇനിയും അതിന് ശേഷമാണെങ്കിൽപ്പോലും എന്ന് പറയുമ്പം ബിസിനസ്സിൽ സഹായിക്കുന്നവരുണ്ടാവാം ജോലി ചെയ്യുന്നവർ ഉണ്ടാകാം എങ്കിൽപ്പോലും വിദ്യാഭ്യാസമെന്ന് പറയുന്നത് അതൊരു തുടർ പ്രവർത്തനമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തേയും നം അല്ലെങ്കില് എന്നാ അങ്ങനെ ഉള്ള വ്യക്തികൾ തന്നെയും നമുക്ക് കാണാൻ സാധിക്കും വിദ്യാഭ്യാസമെന്ന് പറയുന്നത് ഒരു ഒരു ഒരിക്കലുമൊരു അവസാനിപ്പിക്കേണ്ടൊരു പ്രക്രിയ അല്ലായെന്നാണ് എന്ന് കരുതുന്ന നല്ലൊരു സമൂഹമുണ്ട് ഇനി അതല്ല ഏതെങ്കിലും തരത്തില് അതിനോട് വിദ്യാഭ്യാസത്തിനോട് ഒരു അലസത കാണിക്കുന്നവരാണെങ്കിൽപ്പോലും അതുകൊണ്ടൊരു പതിനാറ് പതിനേഴ് പതിനെട്ട് വയസാകുമ്പോഴേക്കും അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് നല്ലൊരു ബോധവും ബോധ്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി ഇപ്പം കൊച്ച് കാലങ്ങളില് ചെറുതായിരുന്ന സമയത്ത് വേണ്ടത്ര പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് കൊടുക്കാതിരുന്നവരാണ് എങ്കിൽപ്പോലും അവര് അത് വിദ്യാഭ്യാസം തുടർന്ന്കൊണ്ട് പോകാൻ തന്നെ ആഗ്രഹിക്കും അങ്ങനെയുള്ള അവരുടെയാഗ്രഹത്തിൻ്റെ ഫലമായി എങ്ങനെ ആയാലും അവർ വിദ്യാഭ്യാസത്തിന് പോവും അത് തന്നെയാണ് നമ്മുടെ ജീവി നമ്മള് കണ്ടുവരുന്നത് വിദ്യാഭ്യാസം പിന്തുടരുകയും ബിസിനസ്സ് കൊണ്ടുപോകുകയും അതേസമയം ജോലി ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം നമുക്ക് നമ്മുടെ നമ്മുടെ ഇപ്പഴത്തെ സാഹചര്യത്തില് നമ്മുടെ സമൂഹത്തില് നമ്മളധികം കാണുന്നില്ല അത് ശെരിക്കുമെനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ പഠനത്തോടൊപ്പം തന്നെ എന്തെങ്കിലും ബിസിനസ് മേഖലയിൽ ഇപ്പം പേരൻസിൻ്റെ ബിസിനസ് ആകാം അതേറ്റെടുത്ത് നടത്തുന്നതിലോ അത് സഹായിക്കുന്നതിലോ തീർച്ചയായിട്ടും അവർക്ക് അവരുടെയൊരു പങ്കാളിത്തമുണ്ടാകുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് അതേപോലെതന്നെ ഉത്തരവാദിത്തമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഒര് ജോലിയും കൊണ്ടുപോകുന്നത് നല്ലതാണ് അതിനും താല്പര്യം കാണിക്കുന്നു അല്ലെങ്കില് മടിയില്ലാത്ത കുട്ടികളിന്നും നമ്മുടെ സമൂഹത്തില് ഉണ്ട് അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിത ലക്ഷ്യം മാത്രമായി അല്ലെങ്കിലൊരു ഒരു ഒരു ജീവിതത്തിനൊരു മാർഗ്ഗം തേടിയെത്തുക മാത്രമല്ലാതെ അതൊരു ശരിയായി കൊണ്ടുപോകുന്ന വ്യക്തികൾതന്നെ നമ്മുടെ സമൂഹത്തില് ഉണ്ട് എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത്